അതെ ജ്യോതി ആണ്

റെഡി ആ ഒന്നാമത് ഇന്ന് പണിക്കാരൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് കുറച്ച് ഇതായിട്ട് എന്തായാലും എന്താണ് അപ്പം നിങ്ങൾ വരാനാവുമ്പോഴേക്ക് എല്ലാം സെറ്റ് ചെയ്യാം ആ ഉം ഉം

ആ ആ ആ ഓക്കെ ആ ആ ആ ഓക്കെ അങ്ങനെ ചെയ്യാം ഇൻ

ആ ആ അതൊക്കെ ചെയ്യാം ഓക്കെ ഓക്കെ ആ ആ ഒന്ന് സെറ്റ് ചെയ്യാം അല്ലേ കി കിച്ചണിൽ എന്തെങ്കിലും ഫർദർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ കിച്ചണിൽ കൂ ഇല്ല മാറ്റണം നീട്ടി വാർക്കണം ആ ശരി ആ ഇന്ന് ഉം പിന്നെ വാഷ് ബേസിൻ വാഷ് ബേസിൻ ഒക്കെ പിന്നെ ഇതിൻ്റെ കോണീൻ്റെ താഴേക്കായിട്ട് മതിയോ

ആ ആ ആ ഫിറ്റ് ചെയ്യാം ഒന്നാമത് പണി തുടങ്ങാൻ പണിക്കാരിൻറെ ഒരു ഇതാണ് പണിക്കാർ വന്ന് കിട്ടാനൊരു പ്രയാസം ഉണ്ട് ഇപ്പോൾ പല സൈറ്റിലും വർക്ക് നടക്കുന്നതുകൊണ്ടേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ആ അല്ല മാഡത്തിൻ മാഡം മാഡത്തിൻ്റെ കാര്യം ഞങ്ങൾ സെറ്റ് ചെയ്യാം ചെയ്യാം വർക്ക് ചെയ്യാം ഉം ഉം പണിക്കാരോട് പെട്ടെന്ന് ചെ എത്താൻ പറയാം പിന്നെ ഈ പിന്നെ എന്താണ് പറയുക കിച്ചണിൻ്റെ ആ ഭാഗത്തുള്ള ആ കാര്യങ്ങളൊക്കെ ഗ്യാസ് വയ്ക്കുന്ന സ്ഥലം അവിടെ ഒക്കെ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഒക്കെ സെറ്റ് ചെയ്യാം ആ ആ അതൊക്കെ ചെയ്യാം ചെയ്യാം ആ ആ ആ വേണോ ഉം ഉം വന്നില്ലെങ്കിൽ ആ അത് റെഡി ആക്കാം റെൻറിൻ്റെ കൂടെ തന്നെ റെഡി ആക്കാം പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് കോണീൻറെ അവിടെ അല്ലെങ്കിൽ പിന്നെ മോളിൽ അങ്ങനെ അവിടെ ഇവിടെ എന്നിട്ട് ആ ടൈൽ ഒട്ടിക്കണം ഉം മാറ്റണം ഒഴിവാക്കിയിട്ട് പുതിയത് ഇടണം ഉം ഉം ഉം ഉം ആ ആ ആ ഉം ഉം ഉം നല്ല രീതി വേറെ രീതി മാറ്റണം

ആ ആ ആ ഞങ്ങൾ ആ വർക്ക് നിങ്ങൾ ചെയ്യുന്നതാണ് ആ ചെയ്യും ചെയ്യും ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും ആ അത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇതിലുണ്ട് നമുക്ക് അവരോട് പറഞ്ഞ് സെറ്റ് ചെയ്യാം

വേറെ ഈ പിന്നെ എന്താണ് പറയുക അടുക്കളയിലുള്ള മരം കൊണ്ട് ഉണ്ടാക്കിയ എന്താണ് അലമാരകൾ ഒക്കെ ഉണ്ടല്ലോ അത് അത് ഫുൾ മാറ്റേണ്ടി വരും അതൊക്കെ ഏകദേശം നശിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ഫുൾ അത് റാക്കുകൾ ഒക്കെ മാറ്റിയിട്ട് പുതിയ മോഡൽ രീതിയിൽ ആക്കേണ്ടി വരും ആ ആ സ്പേസ് ആ അടുക്കള ഒന്നും കൂടിയൊരു എന്താണ് വലിപ്പം കൂട്ടി എടുക്കാം കുറച്ചും കൂടി മുന്നിലേക്ക് തള്ളി വലിപ്പം കൂട്ടിയിട്ട് എടുക്കാം തട്ടിയിട്ട് ആ ആ നീട്ടി എടുക്കാം അത് ഉം ഉം നീട്ടി എടുക്കാം അപ്പം അവിടെ ഇങ്ങനെ റാക്കിൻറെ ഇതൊക്കെ വരും അത് നമുക്ക് എന്ത് മരം കൊണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫാബ്രിക് വർക്ക് അങ്ങനെ എന്താണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്യാം ഇൻറീരിയറ് വർക്ക് ആ ആ ആയിക്കോട്ടെ ആ ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ ചെയ്യാം പിന്നെ ഡോർ എവിടെയെങ്കിലും ഡോറുകൾ അങ്ങനെ എന്തെങ്കിലും വയ്ക്കാനുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെത്തന്നെ അതും ചെയ്യാം

ആ അത് നോക്കും അതും ചെയ്യാം

ആ ആ ആ കൂട്ടിയിട്ട് ചെയ്യാൻ ആ ആ ചെയ്യണ്ട ആ ആ റെഡി ആക്കാം റെഡി ആക്കാം ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ